ഭാവിയില് മലയാളഭാഷയെ നമ്മള് എങ്ങനെ ഒക്കെ സംരക്ഷിക്കാമെന്നും പ്രോത്സാഹിപ്പിക്കാമെന്നുവൊക്കെ ചോദിച്ചുകഴിഞ്ഞാൽ അതിന് ഒരുപാട് ഉത്തരങ്ങൾ ഉണ്ടാവും പക്ഷേ നമ്മള് ചെയ്യണ്ടത് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഏറ്റവുംകൂടുതല് ആൾക്കാര് ഉപയോഗിക്കുന്ന ഒരു മാധ്യമമേഖലയാണ് സിനിമ നമ്മള് മലയാള സിനിമ കൂടുതലായിട്ട് കാണാൻവേണ്ടി ആൾക്കാരെ പ്രോത്സാഹിപ്പിക്കണം മലയാളത്തില് നല്ലനല്ല സിനിമകള് ഉണ്ടാകണം അതുപോലെ വായന പുസ്തകം ഒരുപാട് മലയാളത്തില് എഴുത്തുകാരെ നമ്മള് പ്രോത്സാഹിപ്പിക്കണം അവർക്ക് പ്രോത്സാഹനസമ്മാനങ്ങളും സമ്മാനങ്ങളൊക്കെ നൽകണം കൂടുതൽകൂടുതൽ എഴുതാൻ അവരെ സഹായിക്കണം അവരെ പ്രേരിപ്പിക്കണം നല്ലനല്ല രചനകള് സൃഷ്ടിക്കപ്പെടാനായിട്ട് നമ്മള് അവർക്ക് അതിനുവേണ്ട സാഹചര്യം ഒരുക്കികൊടുക്കണം അപ്പോൾ അങ്ങനെ ഉണ്ടാവുന്നത് വഴി നല്ലനല്ല പുസ്തകങ്ങള് രൂപപ്പെടും പിന്നെ ഓൺലൈൻ ഓൺലൈന് ഓൺലൈനില് മലയാള മാധ്യമങ്ങൾ സൃഷ്ടിക്കുക അതുവഴി സജീവമായിട്ടുള്ള പ്രവർത്തനം കാഴ്ചവയ്ക്കുന്ന മലയാള മാധ്യമങ്ങള് ഉണ്ടെങ്കില് മലയാളത്തിൻ്റെ ഉപയോഗം മാത്രം കാഴ്ചവയ്ക്കുന്ന മാധ്യമങ്ങൾ ഉണ്ടെങ്കിൽ മലയാളത്തെ മലയാളഭാഷയെ വളർത്താൻപറ്റും പിന്നെ മലയാളികള് ഒത്തുകൂടുന്ന സാഹചര്യങ്ങളില് മലയാളത്തിൽ മാത്രം സംസാരിക്കാൻ ശ്രമിക്കുന്ന ഒരു കൂട്ടായ്മ സൃഷ്ടിച്ചെടുക്കുക സ്കൂളുകളില് പഠനത്തിനുവേണ്ടി മാത്രമല്ല അല്ലാതെതന്നെ ശുദ്ധമായ മലയാളം സംസാരിക്കുന്ന ഒരു ഒരൂ ഒരുഒര് കൾച്ചർ രൂപപ്പെടുത്തിയെടുക്കുകവഴിയൊക്കെ മലയാള ഭാഷയെ നമുക്ക് സംരക്ഷിക്കാൻ കഴിയും പിന്നെ ഏറ്റവും പ്രധാനമായിട്ട് പറയാനുള്ളതെന്നുപറഞ്ഞുകഴിഞ്ഞാൽ മലയാളത്തിലുള്ള ഗാനങ്ങൾ അതുപോലെ പഴയ കഥകൾ ഇതുപോലുള്ള പഴയ പഴയ കാര്യങ്ങളെല്ലാം വീണ്ടും ഇപ്പഴത്തെ തലമുറയിലെ കുട്ടികൾക്ക് മനസിലാവുന്ന രീതിയില് മലയാളത്തില് രൂപപ്പെടുത്തിയെടുക്കാനും മലയാളത്തില് തന്നെ എല്ലാം പറഞ്ഞു മനസിലാക്കി കൊടുക്കാനും മാതാപിതാക്കള് ശ്രമിക്കുവാണെങ്കിൽ ഭാവിയിൽ മലയാളം ഒരുപക്ഷെ നഷ്ടപ്പെട്ടുപോവുകയില്ല മാതാപിതാക്കള് കുട്ടികളില് മലയാളത്തിൻ്റെ മൂല്യം വർധിപ്പിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുകയാണെങ്കിൽ മലയാള ഭാഷയെ നമുക്ക് സംരക്ഷിക്കാൻ പറ്റും